നമ്മള് എപ്പോഴും പ്രാണികളുടെയോ പാമ്പുകളുടെയോ കടിയേൽക്കുക കുത്തലേൽക്കുക അങ്ങനെയുള്ള പലകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട് നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മള് എപ്പോഴും നമ്മുടെ വീടുകളില് ഷൂകളൊക്കെ അഴിച്ചുവച്ച് പിറ്റേദിവസം അത് എടുത്തിടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളോ വേറെന്തെങ്കിലും ഇരിപ്പുണ്ടോ വിഷജന്തുക്കള് എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മള് ഇടാവു പിന്നെ അതുപോലെ തന്നെയാണ് നമ്മടെ എന്താ പറയാ മാളങ്ങള് നമ്മള് നടന്നുപോകുന്ന വഴികള് ഇതൊക്കെ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കുക ഷൂ പ്ലാസ്റ്റിക് എന്താണെങ്കിലും പിന്നെ നമ്മള് എപ്പോഴും മാളങ്ങളിന്നൊക്കെ പാമ്പുകടിയേൽക്കുക അല്ലെങ്കിൽ എന്താ പ്രാണികൾ കുത്തുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യണം എപ്പോഴാണെങ്കിലും നമ്മള് സുരക്ഷിതമായിട്ടായിരിക്കണം നമ്മുടെ കൈകള് കാലുകള് പ്രാണികളുടെ കുത്തിൽനിന്നൊക്കെ നമ്മള് നോക്കണം പിന്നെ എപ്പോഴും നമ്മള് പ്രൊട്ടക്ട് ചെയ്യണം നമ്മുടെ ഡ്രസ്സിങ് രീതിയൊന്ന് ശ്രദ്ധിക്കുക ചെരുപ്പ് ധരിക്കുമ്പോ അത് ശ്രദ്ധിക്കുക വൃത്തിയായിട്ട് നടക്കുക ഇല്ലെങ്കില് നമ്മള് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മള് എന്തുചെയ്യണം മാളങ്ങള് പൊത്തുകള് പിന്നെ അതേപോലെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത അതുപോലും എടുക്കുന്ന സമയത്ത് ഓരോ ടൈമിലും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നമ്മള് എന്തുചെയ്യാ എല്ലാ കാര്യങ്ങളും എടുക്കാവു പിന്നെ ബാത്റൂമുകള് ബാത്റൂമിൻ്റെ വിൻഡോസ് അല്ലെങ്കിൽ വീടുകളുടെ വിൻഡോസ് ഓപ്പൺ ചെയ്യുക ജനലുകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മള് എന്താ പറയാ എല്ലാം ബെഡ്ഡായി ക്കോട്ടെ കട്ടിലിനടിവശങ്ങള് അതുപോലെ എല്ലാ സ്ഥലങ്ങളും ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ള പ്രാണികൾ ഉണ്ടോന്നറിയില്ല ആ അതു കാണാതെപോയി ഇനി അവ കടിച്ചു കഴിഞ്ഞാൽ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്തുചെയ്യാ പാമ്പു കടിയേറ്റതാണെങ്കിൽ ആ ഒരു വശത്ത് നമ്മൾ നല്ല ടൈറ്റായി കെട്ടി ഒഴുകുന്ന വെള്ളം നന്നായിട്ടൊഴിക്കുക പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോവുക ആ പേഷ്യൻറ്റിനെ നമ്മൾ എന്തു ചെയ്യാ ടെൻഷൻ അടിക്കാത്ത രീതിയിൽ മയക്കത്തിലേക്ക് വിടാതെ നമ്മള് പ്രൊട്ടക്ട് ചെയ്തു നോക്കുക പിന്നെ വിഷജന്തുക്കൾ കടിച്ചുകഴിഞ്ഞാൽ എപ്പഴാണെങ്കിലും നമ്മൾ മഞ്ഞള് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും പെട്ടന്ന് നമ്മള് മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവ്വാ അതിൽ അവിടുന്ന് ഫെസിലിറ്റീസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട ഒരവസ്ഥയിലേക്ക് പോവും